എൻ്റെ ജോലിയുടെ ഭാവി വളരെ നല്ലതായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ ഇപ്പോൾ എല്ലാ സമയം നമുക്ക് വീട്ടിൽ നിന്നും പോയി വരാനും കൃത്യമായിട്ട് തിരിച്ചെത്താനുമൊക്കെ ഉള്ള ഒരു സമയം പിന്നെ വളരെ ടെൻഷനൊന്നുമില്ലാതെ ജോലിക്ക് പോയിട്ട് വരാൻ കഴിയണം പിന്നെ അതുപോലെതന്നെ തുല്യ വേതനം പിന്നെ സഹപ്രവർത്തകരുടെ എല്ലാവരും ഒരേപോലെ ഒരേ മനോഭാവമുള്ളവരായിരിക്കണം ആ ആ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ആ ജോലി ചെയ്യാൻ അവിടെ ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ ഒക്കെയാണ് എൻ്റെ ആഗ്രഹം